ഹലോ നമസ്കാരം ഹലോ ഇത് ജയ്മോൾ സുജയാണേ എന്തായിരുന്നു ഓക്കെ ഓക്കെ ഇപ്പോൾ എത്ര വയസ്സുണ്ട് അമ്പത്തേഴ് വയസ്സ് മുഖത്ത് കറുത്ത പാടുകളൊക്കെയുണ്ടോ ഉണ്ട് ആ അത് മാറാനായിട്ട് നൈറ്റ് ക്രീമുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കണം ഒലേ നല്ലതാണ് പിന്നെ ഗോരിയെന്നും പറഞ്ഞൊരു സ്കിൻ കെയറിൻ്റെ ക്രീമുണ്ട് അതും നൈറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട് ഡേ ആൻ്റ് നെറ്റിൻ്റെ ഉണ്ട് അപ്പം നൈറ്റിൽ യൂസ് ചെയ്യുന്നത് ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഇഫ്ഫക്ടീവ് ആയിരിക്കും

ഉണ്ട് ഉണ്ടല്ലോ ലാക്മെയുടെ സൺസ്ക്രീൻ പ്രൊഡക്ടുണ്ട് അത് എസ് പി എസ് ഫിഫ്റ്റിയുടേത് യൂസ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത് നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് വച്ച് എസ് പി എസ് ഫിഫ്റ്റിയുടേതാണ് നമുക്ക് കുറച്ച് കൂടി നല്ലതായിട്ട് പ്രയോജനപ്പെടുന്ന സാധനം അത് ആൻഡ്രെ ക്രീമുണ്ടല്ലോ ഹിമാലയായിടെ ആൻഡ്രെ ക്രീമുണ്ട് അത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് ആ വില ആ പിന്നെ സൺസ്ക്രീമിൻ്റെ ചെറിയതിനാണെങ്കിൽ നൂറ്റിപ്പത്ത് രൂപയാണ് പിന്നെ ഹിമാലയയുടെ ആൻഡ്രെ ക്രീമിനാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ പിന്നെ ആദ്യം പറഞ്ഞ ഗോരിയുടെ ആണെങ്കിൽ മുന്നൂറ്റി അമ്പത് ഓലയുടെ ആണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് നൈറ്റ് ക്രീമിന് അതെ ആ നമ്മുടെ ഷോപ്പിലുമുണ്ട് എല്ലാ ലേഡീസ് സെൻ്ററുകളിലുമുണ്ടത് ഓക്കെ താങ്ക് യു മോയിസ്ച്ചറൈസിംഗ് ഉണ്ട് ഇപ്പോൾ ലാക്മെയു ടെ തന്നെ ഒരു മോയിസ്ച്ചറൈസിംഗ് ക്രീം ഇറങ്ങിയിട്ടുണ്ട് പീച്ച് മിൽക്കെന്നു പറഞ്ഞ് അത് നല്ല എഫ്ഫക്ടീവായിട്ടുള്ള ഒരു ക്രീമാണ് കൂടാതെ പോണ്ട്സിൻ്റെ തന്നെ നമ്മുടെ പുറത്തു നിന്ന് നേരത്തെ വരുന്ന മോഡലിൽ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെ ഇപ്പം മൊയിസ്ച്ചറൈസിംഗ് ക്രീം അവൈലബിളാണ് അത് സൈഡ് എഫ്ഫക്ട് ഒന്നുമില്ല അത് കൊച്ച് കുട്ടികൾക്കു മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാവുന്ന പ്രോഡക്റ്റാണ് ലാക്മെ ഒക്കെ നല്ല ബ്രാൻ്റഡ് സാധനമാണ് ഓയിലി സ്കിന്നിന് ആദ്യമേ നമ്മൾ പിന്നെ ഫേസ് വാഷിട്ട് ഫേസ് നല്ലതായിട്ട് കഴുകുക അത് ഈ ഹിമാലയയുടെ ഓയിൽ ക്ലിയറ് ഫേസ് വാഷുണ്ട് അത് ഉപയോഗിച്ചതിനു ശേഷം ഏതെങ്കിലും നല്ല ക്രീമുകൾ ഉപയോഗിച്ചാൽ മതി ഓലയുടെ ഒക്കെ യൂസ് ചെയ്തോ അത് കുഴപ്പമില്ല ആ ഡെയ്ലി രണ്ടു നേരം ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത് കൊച്ചു കുട്ടികൾക്ക് ബേബി ക്രീമുകളുണ്ട് പിന്നെ കൊച്ചു കുട്ടികൾ ആ അതെ അതെ ഹിമാലയയുടെയുണ്ട് ജോൺസൺ ആൻ്റ് ജോൺസൺ ഉണ്ട് ഇപ്പോൾ കുറേ കൂടുതലായി ഉണ്ട് ഉണ്ട് അതു ചില ഇത് പ്രോഡക്ട്സിന് ഉണ്ടാക്കിയ കമ്പനികളിൽ വന്ന ഡിഫക്റ്റിൻ്റെ കൊണ്ടാണ് ഇടയ്ക്ക് ഒരു ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത് ഇപ്പോൾ അതൊക്കെ പരിഹരിച്ച് നല്ല രീതിയിൽ അവരുടെ പ്രോഡക്ട്സ് വരുന്നുണ്ട് നല്ലതായിട്ട് സെയില് നടക്കുന്നുണ്ട് ഓക്കെ സംശയങ്ങൾ തീർന്നോ ആ ഓക്കെ ബൈ ബൈ താങ്ക് യു